ഹലോ കുമാർ ഹോട്ടലല്ലേ ഞാൻ രമേശനാണ് ഞാനൊരു ദോശയും സാമ്പാറും ഓഡര് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനിപ്പോള് വിളിച്ചതെന്നുവച്ചാല് അത് അഡ്രസ്സിലൊരു മാറ്റമുണ്ട് അതില് കൊടുത്തിരിക്കുന്ന അഡ്രസ് അല്ല നിങ്ങളെനിക്ക് അയക്കാനുള്ളത് സംഭവമെന്നുവച്ചാല് ഞാന് ആ അഡ്രസ്സിലിപ്പോള് നിലവിലില്ല ഞാൻ അവിടെനിന്നിപ്പോള് വേറൊരു സ്ഥലത്ത് പോയി എനിക്കൊരു നല്ലൊരു വർക്ക് കിട്ടി അപ്പോള് ഞാൻ അങ്ങോട്ട് പോവുകയാണ് അപ്പോള് നിങ്ങള് ഞാൻ ഒരു പുതിയ അഡ്രസ്സ് നിങ്ങള്ക്ക് അയച്ചുതരാം നിങ്ങള് ഈ ഫുഡ് ഈ ദോശയും സാമ്പാറും നിങ്ങള് അവിടെക്കൊന്ന് ഓർഡര് ചെയ്യാം പറ്റുമോ നിങ്ങള്ക്ക് കാരണം ഞാൻ ഉച്ചയ്ക്ക് വലുതായിട്ടൊന്നും കഴിച്ചില്ല അപ്പോള് എനിക്ക് നല്ല വർക്ക് ലോഡ് ഉണ്ട് അപ്പോള് അതുകൊണ്ടാണ് ഞാൻ ഫുഡ് ഓർഡറെയ്തത് നിങ്ങളീ ദോശയും സാമ്പാറും ഈ പുതിയ അഡ്രസ്സിലേക്കൊന്ന് അയച്ചുതരാമോ കാരണം കാരണമെനിക്ക് തിരിച്ചീ പഴയ അഡ്രസ്സിലോട്ടുള്ള സ്ഥലത്തെനിക്ക് വരാൻ സാധിക്കില്ല വരണമെങ്കില് തന്നെ അത് വൈകുന്നേരമാവും അപ്പോള് ഈ ദോശയും സാമ്പാറും നിങ്ങള് ഈ പുതിയ അഡ്രസ്സിലേക്കൊന്ന് ഡെലിവറി ചെയ്യാൻ പറ്റിയിരുന്നെങ്കില് എനിക്ക് വലിയൊരു ഉപകാരമായിരുന്നു ഇതൊന്ന് പറയാനാണ് ഞാൻ വിളിച്ചത് അപ്പോള് ഇത്രയും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് ഞാൻ അഡ്രെസ്സ് മാറ്റിയതില് ഖേദിക്കുന്നു നിങ്ങള് ഒന്ന് ഈ ദോശേം സാമ്പാറും ഇത്തിരി അവിടെ ഒന്ന് ഞാൻ പറയുന്ന പുതിയ അഡ്രസ്സിലേക്കൊന്ന് അയച്ചുതന്നാൽ കൊള്ളാമായിരുന്നു